നമ്മൾക്ക് ഇപ്പം റോ ക്ലൈബിങ്ങ് എന്നു പറയുമ്പത്തേക്ക് എനിക്ക് അതിനെ പറ്റി വലിയ അറിവൊന്നുമില്ല എന്നാലും ഇപ്പം റോ ക്ലൈമ്പിങ്ങ് എന്നുള്ള നില ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടു വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ പ്രശ്നങ്ങളും നമുക്ക് കുറേ നല്ല കാര്യങ്ങളൊക്കെ വരും അപ്പം പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് വിട്ട് കൊടുക്കാതെ നമ്മൾ പ്രശ്നങ്ങൾ അങ്ങനെ വിട്ടു കൊടുക്കാതെ നമ്മൾ അല്ലെങ്കിൽ താഴ്ന്നു പോവാതെ ഡൗൺ ആയി പോവാതെ നമ്മൾ മുന്നേറുകയൊക്കെ ശ്രമിക്കണം അപ്പം നമ്മൾ ഓരോ തവണ റോ ക്ലൈമ്പിങ്ങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഒരു അടി ഇപ്പം താഴേക്ക് വീഴുമ്പത്തേക്ക് വീണ്ടും ശ്രമിച്ചു കൊണ്ടിരിക്കണം നമ്മൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഈ ലോകത്തൊന്നും നേടാനൊന്നും അങ്ങനെ പറ്റത്തില്ല നമ്മൾ അപ്പം വീണ്ടും തോറ്റ വീണ്ടും ശ്രമിച്ചു വീണ്ടും ശ്രമിച്ചു ശ്രമിച്ചു ശ്രമിച്ചു നമുക്ക് ഇങ്ങനെ റോ ക്ലൈമ്പിംഗ് ആണേലും പഠിക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളാണെങ്കിലും ഒറ്റ അടിക്ക് ഒന്ന് ആർക്കും ഒരു ലക്ഷ്യവും നമുക്ക് ഇതാവാൻ പറ്റത്തില്ല ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നമ്മൾ അപ്പം ഓരോ സ്റ്റെപ്പിൽ ഇങ്ങനെ വീണു കൊണ്ടിരുന്ന നമ്മൾ അവിടെ വച്ചു നിർത്താനല്ല നോക്കേണ്ടത് നമ്മൾ വീണ്ടും ശ്രമിച്ചു കൊണ്ട് നമ്മൾ മുന്നേറി മുന്നേറി മുന്നേറി മുന്നേറണം നമ്മൾ ഈ കുഞ്ഞിലൊക്കെ ഈ മരമൊക്കെ കയറുമ്പത്തേക്കോ അല്ല സൈക്കിളൊക്കെ ഓടിക്കുമ്പോഴത്തേക്കോ ഒറ്റ ഒറ്റടിക്ക് നമ്മൾ ഒന്നും ചെയ്യത്തില്ല ഇപ്പം ആദ്യമായിട്ട് സൈക്കിളൊക്കെ ഓടിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ വീണു പഠിക്കത്തെ ഉള്ളൂ ഞാൻ ഒക്കെ കുഞ്ഞിൽ അങ്ങനെ ആയിരുന്നു ഇപ്പം അതേപോലെ തന്നെ മരമൊക്കെ കയറുമ്പത്തേക്ക് നമ്മൾ പയ്യെ അറിഞ്ഞൂ അറിഞ്ഞേ കയറത്തുള്ളു ഒറ്റ അടിക്ക് ചാടി കയറാൻ നോക്കിയാൽ വീണു ഇപ്പം വീണു അപ്പം നമ്മൾ അവിടെ വച്ചു നിർത്തിയോ പേടിച്ചോ മാറില്ലല്ലോ നമ്മൾ വീണ്ടും ശ്രമിച്ചു അങ്ങനെ വേണം എല്ലാം ചെയ്യാൻ അപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൂടെ ഹരിയർ ഫോർട്ട് പറയുന്ന ഒരു മല കയറാൻ പോയായിരുന്നു അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്ക് നയൻ്റി ഡിഗ്രി ഉള്ള സ്റ്റെപ്പുകൾ വച്ചുള്ള ഒരു മലയായിരുന്നു അപ്പം എൻ്റെ കൂടെയുള്ളവർക്കും എനിക്കും ആദ്യമേ കണ്ടപ്പോൾ പേടിയായി കയറാൻ പറ്റുമോ എന്നൊക്കെ പക്ഷെ മനസ്സ് അങ്ങ് ഉറപ്പിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ കയറിയേക്കാം എന്നുള്ള ഒരു ഇത് ഞങ്ങൾ പയ്യെ ഓരോ സ്റ്റെപ്പ് നോക്കി നോക്കി നോക്കി കയറി അങ്ങനെ നമ്മൾ പേടിച്ചോ മാറിയോ നിൽക്കില്ലേ അപ്പം നമ്മൾ ഈ കുഞ്ഞിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വീണു പഠിച്ചും നമ്മൾ ചെയ്തു ചെയ്തു ചെയ്തു വന്നു കൊണ്ട് നമുക്ക് എന്ത് വന്നാലും നേരിടാൻ ഒരു മനസ്സാണ് ലൈഫിൽ ഉണ്ടായത് ഇപ്പോൾ റോക്ക് ക്ലൈമ്പിംഗ് ആണേലും അല്ലെങ്കിൽ ബാക്കി എന്ത് വിദ്യകൾ ആണേലും കൊണ്ട് അപ്പ അതൊന്നും എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നു പോലുമില്ല പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ റോ ക്ലൈമ്പിംങ്ങ് കൊണ്ട് തന്നെ നമുക്ക് എന്നാൽ തോറ്റ് പോകത്തില്ല എന്നൊരു ഉറപ്പാണ് മനസ്സിൽ ഉള്ളത് കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കുഞ്ഞിലേ ഓരോന്നും ചെയ്തു പഠിച്ചു വന്നതു കൊണ്ട് തന്നെ പിന്നേ റോ ക്ലൈമ്പിങ്ങിനെ പറ്റി ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെ എന്നു ചോദിച്ചാൽ മനസ്സിൽ ഒരു കാര്യം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒറ്റ അടിക്ക് എന്തായാലും എത്താൻ പറ്റത്തില്ല കാരണം അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ കുറേ അപ്സും ഡൗൺസും എല്ലാം അപ്പം നമ്മൾ ഡൗൺ ഇപ്പം നമുക്ക് എന്തേലും വീഴ്ച്ചകളോ താഴ്ച്ചകളോ വരുമ്പോൾ അവിടെ നിന്ന് അവിടെ വച്ചത് ഇട്ടേച്ച് പോവാതെ നമ്മൾ വീണ്ടും ശ്രമിച്ചു മുന്നേറാനാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ലോകത്ത് നമുക്ക് ഒന്നും നേടാനും പറ്റത്തില്ല അത് വളരെ ബുദ്ധിമുട്ടായി നമ്മൾ കുറേ കഷ്ടപ്പെട്ട് നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റാതാവും പക്ഷേ അതേ സമയം ഇപ്പം ഒരു വ്യക്തി ഇപ്പം അയാൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിട്ട് വീണ്ടും ശ്രമിച്ചു കൊണ്ടിരുന്നു തോറ്റിട്ട് വീണ്ടും വീണ്ടും ശ്രമിച്ചു ശ്രമിച്ചു ശ്രമിച്ചു ശ്രമിച്ചാൽ മുന്നേറുന്നെ എങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുകയും അത് അപ്പം എന്നാൽ യാതൊരു പ്രശ്നങ്ങളില്ലാതെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് ഇപ്പം ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഇപ്പം ഇന്ത്യൻ ടീമിൽ ഉണ്ട് പക്ഷേ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലെത്തിയത് എല്ലാവർക്കും അറിയാമല്ലോ കുറേ തവണ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താക്കുകയും അല്ലെങ്കിൽ സെലഷൻ കിട്ടാതെ പോവുകയും അവിടെ വച്ചു ഒന്ന് നിർത്താതെ വീണ്ടും ശ്രമിച്ചു ശ്രമിച്ചു ശ്രമിച്ചാണ് അദ്ദേഹം ഇപ്പം നിൽക്കുന്ന സ്ഥാനത്ത് നിന്നേക്കുന്നത് ഇപ്പം രാജസ്ഥാൻ റോയൽസ് എന്നു പറയുന്ന ഐ പി എൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം അതു മാത്രമല്ല ഇന്ത്യൻ ടി ട്വൻറ്ററി ടീമിൽ ഇപ്പം ഉണ്ട് ഇപ്പം അദ്ദേഹം അവിടം കൊണ്ടൊന്നും നിർത്താനല്ല അദ്ദേഹത്തിൻ്റെ പ്ലാന് അപ്പദ്ദേഹം എന്നാൽ ക്രിക്കറ്റിൽ വന്നു കയറി ഇത്രയും വീഴച്ചകൾ ഉണ്ടായിട്ടും അവിടെ വച്ചു ഇട്ടേച്ച് പോയിരുന്നെങ്കിൽ ഇന്ന് ഇപ്പം നമ്മൾ കാണുന്ന സഞ്ജു സാംസനെ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ലായിരുന്നു അപ്പം അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടാണ് അപ്പം ഇതൊക്കെ ഒരു എക്സാമ്പിള് വച്ചു ആൾക്കാർക്ക് മനസ്സിലാവും നമുക്ക് ഒറ്റ അടിക്കൊന്നും ഈ ലോകത്ത് ഒന്നും കിട്ടത്തില്ല നമ്മൾ കഷ്ടപ്പെട്ടാലെ എല്ലാം നേടത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പണ്ടത്തെ പണ്ടൊക്കെ വീട്ടുകാർ നമുക്ക് സൈക്കിള് മേടിച്ചു തരുമ്പോൾ തന്നെ ഓടിച്ചോ വീണെ പഠിക്കത്തുള്ളൂ എന്ന് പറയുന്നത് നമ്മൾ വീഴ്ച്ചയിലേ നിർത്താൻ പാടില്ല നമ്മൾ വീണ്ടും കഷ്ടപ്പെട്ട്